വരൂ വരൂ ആ എന്താ പേര് ഒന്ന് കൂടെ പറയൂ ആ ഇരിക്ക് എന്താ പറ്റിയത് ആ ആ തൊണ്ട വേദനയുണ്ടോ ആ മെഡിസിൻ എടുത്തോ

ആ ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ ആ അതൊന്ന് തരൂ ആ ആ ഈ മെഡിസിൻസ് കഴിച്ചിട്ടും കുറവില്ലല്ലേ ഓക്കേ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് കൊണ്ട് വന്ന് കാണിക്ക് എന്നെ ആ ഓക്കേ

ആ അത് പനിയുടെ ആവും ഇപ്പോൾ കുറച്ചായിട്ട് വൈറൽ ഫീവറിൻ്റെ ഒരു സീസൺ ആണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും വേരിയേഷൻ കാണിക്കുന്നുണ്ടോയെന്ന് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വേറെ എന്തെങ്കിലും സിംപ്റ്റംസ് ഉണ്ടോ ആണല്ലേ ആ ആ ആയിരിക്കും ആ ആ ആ എന്തായാലും ഞാൻ ഇപ്പോൾ മെഡിസിൻ എഴുതി തരാം ഇത് കഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കേ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മെഡിസിൻ എടുത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഇപ്പോൾ ഇങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വരൂ എന്നിട്ട് നമുക്ക് അത് നോക്കീട്ട് മെഡിസിൻ എഴുതാം കാരണം

ആ ആ ഓക്കേ ആ അതെന്തായാലും തന്നോളൂ ഇതിപ്പോൾ ഹീമോഗ്ലോബിൻ മാത്രം അല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇനി ഇപ്പോൾ പ്ലേറ്റ്ലേസും ഇനി ഡെങ്കിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാൻ ആണ് എന്തായാലും ഒന്നും കൂടി ചെക്ക് ചെയ്യൂ

ആ അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ആ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് എന്താ ആ അത് അ ചെയ്യണം അത് ഉണ്ട് ഉണ്ട് ആ ഉണ്ട് ഉണ്ട് അത് ഇവിടെ തന്നെ പോയാൽ മതി അത് ഇവിടുന്ന് പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി അവിടെ ഉണ്ട് ഇതിനുള്ള റൂം ഉണ്ട് കേട്ടോ ഇല്ല ഇല്ല നിങ്ങൾ ഈ ഞാൻ ഇതിൽ എഴുതി തരാം ഈ പ്രെസ്ക്രിപ്ഷൻ എടുത്തൊന്ന് കാണിച്ചാൽ മതി ഓക്കേ ആ അപ്പോൾ ആ മോനുണ്ട് പക്ഷെ അവനു കൊടുക്കാൻ പാടില്ല മോൻ വന്നിട്ടുണ്ടോ ആ അല്ല അല്ല മോന് കൊണ്ട് വരണം കാരണം നമുക്കിത് ഇപ്പോൾ നിങ്ങള് കഴിക്കുന്നത് മോൻക്ക് കഴിക്കാൻ പറ്റില്ല ഞാൻ അവർക്ക് ഇതേ സിംപ്റ്റംപ്സ് ആണോ ആ ഓക്കേ എന്നാലും ആളെ കാണാതെ പറ്റില്ല നിങ്ങൾ എന്തായാലും മോനെ കൊണ്ട് വരാൻ പറ്റുവെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓക്കേ ഓക്കേ ടെസ്റ്റ് ചെയ്ത് വരൂ ഓക്കേ